ഞാൻ പ്രധാനമായും കൃഷി ചെയ്യുന്നത് നെല്ല് കുരുമുളക് അടയ്ക്കാ മരം തെങ്ങ് തുടങ്ങിയവയാണ് അവയിൽ നിന്നും എനിക്ക് നെല്ല് കിട്ടുന്നു കുരുമുളക് അടക്കാ തേങ്ങ തുടങ്ങിയ വിളകളാണ് എനിക്ക് ലഭിക്കുന്നത് അവിടെ വിളകൾ ഞാൻ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലും തേങ്ങയും സംഘത്തിൽ നിന്ന് ആൾക്കാർ വന്ന് സംഭരിച്ചു കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ വില എനിക്ക് ലഭി നൽകും പിന്നെ കുരുമുളക് അടയ്ക്ക തുടങ്ങിയവ മാർക്കറ്റിൽ കൊണ്ടു പോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ അടക്കയ്ക്കും കുരുമുളകിനും വില കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ഞാനവ കൊടുക്കാറില്ല അപ്പം അത് ഞാൻ സൂക്ഷിച്ചു വെയ്ക്കും എന്നിട്ട് വില കൂടുന്ന സമയത്താണ് ഞാനവ കൊടുക്കാറ് അതുവഴി എനിക്ക് നല്ല പൈസയും ലഭിക്കാറുണ്ട്